ഇപ്പോൾ ഞങ്ങളുടെ ഇവിടത്തെ കരകൗശല വിദഗ്ധരെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാട്ടിൻപുറം മേഖലയൊക്കെയാണ് അപ്പോൾ ഒരു ഗ്രാമം അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ പെട്ടതാണെങ്കിലും ഇപ്പം ബാക്കിയുള്ള ജാതിയിൽ പെട്ടതാണെങ്കിലും അരാണെങ്കിലും നമ്മടെ നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അവരെയൊക്കെ നല്ല രീതിലുള്ള കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടിയവരാണ് കാരണം അവർടെ തല അവർടെ തലമുറ എന്താ പറയാ കഴിഞ്ഞകാല ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതിജീവന മർഗ്ഗായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർടെ തലമുറയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ജീവിക്കുന്നവരൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്യാനോക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് വേണ്ടത്ര ധന സഹായോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ലഭിക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടീട്ട് അവർക്ക് സാധിക്കും നല്ല രീതിയിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ചെയ്യാൻ വേണ്ടീട്ട് അവർക്ക് സാധിക്കുന്നതാണ് പിന്നെ കൂടുതലായിട്ടും അംഗീകാരം ലഭിക്കുന്ന പല രീതിലുള്ള പല പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഏറ്റെടുക്കാൻ സർക്കരിന്റെ മുൻഗണനയിൽ ഒന്നും ഇല്ല അതൊന്ന് റെഡി ആക്കുവാണെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നേനെ